ഇപ്പം നമുക്ക് അറിയാമല്ലോ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇല്ലാത്ത പിള്ളേർ ഇല്ല പത്താം ക്ലാസ് വരെ നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം വേണം അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ലൈസൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ വണ്ടി ഓടിക്കണമെങ്കിൽ അതുപോലെ തന്നെ പിന്നെ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എല്ലാ കാര്യത്തിനും വിദ്യാഭ്യാസം കേരളം മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് വിദ്യാഭ്യാസത്തിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ഈ സ്കൂളുകളിലാണെങ്കിൽ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കും പിന്നെ പിള്ളേർക്കെല്ലാം അവർ ഒരു പാത്രമായിട്ട് പോയി വാങ്ങിയാൽ മതി ഗവർമെൻ്റ് സ്കൂളുകളി ൽപ്രത്യേകിച്ചു ഉണ്ട് അൺഎയ്ഡഡ് സ്കൂളുകൾൾ ഉണ്ട് കുഴപ്പമില്ല മറ്റുള്ള സ്ഥാപനങ്ങൾ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞു കൂട അതിന് അത് ഏത് രീതിയിലാണ് വെല്ലുവിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സ്ഥാപനങ്ങൾകൊക്കെ നല്ല നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ടീച്ചേഴ്സ് വരണം അതുപോലെ മാഷന്മാരെ എച്ച് എം ഒക്കെ നല്ല ആൾക്കാർ ആണെങ്കിൽ നല്ല രീതിയിലാണ് ആ സ്ഥാപനങ്ങൾ കൊണ്ടു പോകും അതുപോലന്നെ അവരുടെ ഓരോ സ്കൂളുകളും പ്രവർത്തിക്കുന്ന എങ്ങനെയാന്നുള്ളത് അവരുടെ റിപ്പോർട്ട് വായിക്കുമ്പോ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും പിന്നെ കൂടുതലായിട്ട് പറയാനൊന്നുമില്ല പിന്നെ ഇപ്പം മയക്കുമരുന്നിൻ്റെ ഒക്കെ സംഭവങ്ങളാണ് മയക്കുമരുന്ന് നമുക്ക് അറിയാം ഇപ്പോൾ ഉണ്ടാകുന്ന പിള്ളേർക്ക് ഏതാണ്ട് വായിൽ ഇട്ട് തിന്നുന്ന സാധനങ്ങളാണ് നമുക്ക് അറിയാൻ പാടില്ല എംഡി എന്നോ എന്തൊക്കെയോ പേരു പറയുന്നു എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല എപ്പോൾ നോക്കിയാലും പേപ്പറിൻ്റെ അകത്ത് ഇത് മാത്രല്ല മയക്കുമരുന്ന് അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു പിന്നെ ഈ ടിവി അങ്ങ് തുറന്നു വച്ചാൽ വെട്ടിക്കൊല കേൾക്കാത്ത സംഭവങ്ങൾ മുഴുവൻ നമ്മൾ ഇപ്പം കേട്ടു കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ശരിയാവുന്ന കാര്യമല്ല വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നല്ല രീതിയിലുള്ള ഒരു മന്ത്രിയാണ് ഇപ്പോൾ ഉള്ളത് ആ മന്ത്രി പറയുന്നത് കേൾക്കുക ഈ മയക്കു മരുന്ന് മരുന്ന് നിർത്തലാക്കുക പിള്ളേർ മയക്കു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എവിടെ നിന്ന് കൊണ്ടു വരുന്നു എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നിർബന്ധമായിട്ട് ഇതിൻ്റെ ഓഫീസർമാർ അറിഞ്ഞു വരൾ നല്ല രീതിയിൽ സ്കൂളിലെ കുട്ടികളെ നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കണമെന്ന് ആണ് എനിക് പറയുവാനുള്ളത്